ഹാലോ ശില്പ ച്ചേച്ചി അല്ലെ ചേച്ചി എനിക്കൊരു കാര്യം ഡ്രെസ്സ് തയ്ക്കാനുണ്ടായിരുന്നു ചേച്ചി എന്റെ ബെർത്ത്ഡെ പാർട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സാണെ അപ്പം അതെനിക്ക് തയ്ച്ച് കിട്ടും എന്ന് തന്നാൽ എന്ന് കിട്ടും ഓ ചേച്ചി എനിക്ക് ഞാറാഴ്ച്ചയാണ് ഡ്രെസ്സ് വേണ്ടത് തിങ്കളാഴ്ച്ചയാണ് പാർട്ടി ജോർജെറ്റ്ണ് ആണ് ചേച്ചി പിന്നെ ഫ്രോക്ക് മോഡലാണ് ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ത്രെഡ്ഡ് വർക്കും സ്റ്റോണുമൊക്കെ ഒന്ന് ആഡ് ചെയ്തുഇ തരണം ആണല്ലേ ഞാൻ എന്താലും തയ്ക്കാനുള്ള തുണി ഇന്ന് തന്നെ കൊണ്ടുത്തരാം അതാകുമ്പോൽ ചേച്ചിക്ക് തൈക്കാൻ ടൈം കിട്ടുമല്ലോ ഓ ചേച്ചി ലൈനിങ്ങിന്റെ തുണി വാങ്ങിക്കേണ്ട ചേച്ചീ ഞാൻ അത് ആൾറെഡി വാങ്ങി വച്ചിട്ടുണ്ട് ഡ്രെസ്സെടുത്ത് തന്നേക്കാം അത് വാങ്ങിയിരുന്നു പിന്നെ സ്റ്റോൺ സ്റ്റോണും ത്രെഡുമൊക്കെ ഉള്ളു ഉള്ളു വാങ്ങാനായിട്ട് അത് ഇവിടെ വാങ്ങേണ്ടത് ഒന്നു മറിയില്ലായിരുന്നു അതുകൊണ്ട് ചേച്ചി ആകുമ്പോൾ അറിയാലോ നല്ല മെറ്റീരിയലൊക്കെ കിട്ടും കിട്ടുംന്നെ എവിടെയാണെന്നൊക്കെ അതുകൊണ്ട് പിന്നെ വാങ്ങാത്തെ ഓക്കെ ഞാൻ ഫ്രോക്കിന്റെ ഡിസൈൻ ഞാൻ ചേച്ചിയ്ക്ക് അയച്ച് തരാം ഞാൻ പിൻട്രസ്റ്റിലൊക്കെ ഫോട്ടോ സേവാക്കി വച്ചിട്ടുണ്ടായിരുന്നു ആ ഡിസൈനിൽ ചെയ്തു തന്നാൽ മതി ആ ചേച്ചി ഞാൻ ഇന്ന് തന്നെ കൊണ്ടുത്തരാം താമസിക്കില്ല